എൻ്റെ പ്രദേശത്ത് വെറ്റിനറി ഡോക്ടർമാരുണ്ട് ആശുപത്രിയുണ്ട് വെറ്റിനറി ആശുപത്രിയുണ്ട് അവിടെ ഡോക്ടർമാരുണ്ട് അവിടെയെപ്പോഴും ഡോക്ടർമാർ അഥവാ ഇല്ലാത്ത സമയത്തൊക്കെയാണെങ്കിലും അവർ ഇവർ കാര്യങ്ങളൊക്കെ നോക്കുന്ന നേഴ്സ്മാർ കാണും അവർ മൃഗങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി ഡോക്ടർമാർ ചില ക്ലാസുകളൊക്കെ പഞ്ചായത്ത് വഴിക്കൊക്കെ നമ്മളെ അറിയിച്ചിട്ട് നടത്താറുണ്ട് സാധാരണയായി നമ്മുടെ വീട്ടിൽ ആട് കോഴി പശു പട്ടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്കുള്ളത് ഡോക്ടർമാർ വന്ന് ഇവരെ നമ്മുടെ വീട്ടിലൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാലവർ വരും അല്ലാതെ ഈ ആശാവർക്കർമാരൊക്കെ വന്ന് ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് എൻക്വയറി നടത്തി വേണ്ട കാര്യങ്ങളൊക്കെ ഉപദേശങ്ങളൊക്കെ തരാറുണ്ട് പിന്നെ സാധാരണയായി ഇവർക്ക് നല്ല പശുവിനെയൊക്കെ വളർത്തുന്നവർക്ക് നല്ല ഫുഡ് നല്ല ഫുഡ് വിറ്റമിന് ഒക്കെയുള്ള പൊടികൾ അങ്ങനെയൊക്കെ മൃഗാശുപത്രി നമുക്ക് വേണ്ടി തരാറുണ്ട് പിന്നെ മരുന്ന് എന്തെങ്കിലും അസുഖമൊക്കെ ചെന്നൊന്ന് പറ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അവർ മരുന്ന് ഫ്രീയായിട്ട് തരാറുണ്ട് നല്ല ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഇവർ ഈ പുഷ്ടി അങ്ങനെയുള്ള പശുവിനുള്ള മരുന്ന് ആഹാരങ്ങൾ നമ്മൾ വെള്ളത്തിൽ കുഴച്ച് കൊടുക്കുന്നു അത്രയും ആഹാരങ്ങളൊക്കെ മൃഗാശുപത്രിയിൽനിന്ന് നമുക്ക് പകുതി വിലയ്ക്ക് സബ്സിഡി അവർ സബ്സിഡിയായിട്ട് നമുക്ക് ലഭിക്കാറുണ്ട് പട്ടിക്കൊക്കെയാണെങ്കിലും എല്ലാ വർഷവും കുത്തിവെപ്പെടുക്കണം അത് നമ്മൾ പട്ടീനെ അവിടെ മൃഗാശുപത്രിയിൽ കൊണ്ടുവരണം പിന്നെ പശുവിനും ഒക്കെയാണെങ്കിൽ ബ്രീഡിംഗിന് വേണ്ടിയുള്ള കുത്തിവെപ്പുകളുണ്ട് അപ്പം അതുകഴിഞ്ഞ് ഇപ്പോൾ പ്രസവമൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുകയാണെങ്കിൽ ആ ഡോക്ടർമാരെ ചെന്ന് വിളിച്ചാൽ അവരുടെ സേവനങ്ങൾ നമുക്ക് ലഭ്യമാണ് അത് ഏത് സമയത്തും അവർ വരും അല്ലാതെയുള്ള അസുഖങ്ങളൊക്കെയാണെങ്കിലും പെട്ടെന്നെന്തെങ്കിലുമാവശ്യം വന്നാൽ അവരെ അവരത് ചെന്ന് ഡോക്ടർമാരെ വിളിച്ചാലവര് വന്ന് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതാണ് പിന്നെ കാലാ കാലങ്ങളിൽ ചെയ്യേണ്ട ഇഞ്ചക്ഷന് കുത്തിവെപ്പുകൾ അവർ ചെയ്യാറുണ്ട് അസുഖമൊക്കെ വരുമ്പോഴത്തേക്കിനും കോഴികൾക്കൊക്കെയാണെങ്കിലും ആ വാക്സിനേഷനെടുത്ത കോഴികളെയാണ് സാധാരണ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പട്ടിക്ക് വേണേൽ നമ്മൾ എല്ലാ വർഷവും അവിടെ കൊണ്ട് ചെന്ന് ഇഞ്ചക്ഷനെടുക്കേണ്ടതാണ്